വെള്ളം എന്തിനൊക്കെ ആവശ്യം ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ എന്നും ഉപയോഗിക്കുന്നത് അങ്ങനെ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ ക കഞ്ഞിവെക്കാൻ കറി വെക്കാൻ പാചകം ചെയ്യാൻ അങ്ങനെയെല്ലാം ഉപയോഗിക്കാറുണ്ട് പിന്നെ അലക്കാൻ നമ്മൾ തുണി ഒക്കെ അലക്കാൻ ആയിട്ട് വെള്ളം യൂസ് ചെയ്യാറുണ്ട് പിന്നെ വേനൽക്കാലത്താണെങ്കിൽ ചെടി നനക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് വീട് തുടയ്ക്കാൻ അതിനൊക്കെയാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത് കുടിക്കാൻ വെള്ളം യൂസ് ചെയ്യും ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നത്